ഹലോ ആരാണ് സംസാരിക്കുന്നത് അതെ ഓട്ടോ ഓട്ടോയാണ് ഓക്കേ വരാമല്ലോ നിങ്ങളെത്ര പേരുണ്ട് ആ ഓക്കെ മാഡം ഇവിടുന്ന് പാലാ വയലായിൽ നിന്ന് പാലരുവി പോകണമെങ്കിൽ നല്ല ദൂരം ഉണ്ട് കാരണം ഇവിടെ നിന്ന് ആദ്യം അഞ്ചല് അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴയിൽ നിന്ന് തെന്മല തെന്മലയിൽ നിന്നാണ് ആര്യങ്കാവ് ആര്യങ്കാവിലോട്ട് പോകുന്ന സ്ഥലത്താണ് ഈ പാലരുവി എന്ന് പറഞ്ഞ സ്ഥലം അപ്പം അവടെ പോകണമെങ്കിൽ നല്ല ദൂരം ഉണ്ട് മുപ്പത്തി നാലല്ല മേടം ഇവിടുന്ന് അവിടം വരെ അമ്പത്ക്ക് അമ്പത് കിലോമീറ്ററുണ്ട് ആ ഉണ്ട് മാഡം ഉണ്ട് ഉണ്ട് ആ അമ്പത് കിലോമീറ്ററാണ് മേടം അപ്പം നമുക്ക് മേടം ആ ഒരു ദിവസത്തേക്കിന് ആണെങ്കിൽ ഒരു രണ്ട് മാഡം ഒരു മാഡം ഓക്കെ മൂവായിരം രൂപയാവും കാരണം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുകയും വേണം തിരിച്ച് നിങ്ങളെ ഇവിടെ കൊണ്ടാക്കുകയും വേണം മൂവായിരം രൂപയാവും

ഇല്ല മാഡം മൂവായിരം രൂപയാവും മാഡം ഇപ്പോൾ പെട്രോളിനൊക്കെ ഭയങ്കര വിലയാണ് അതും അല്ല നിങ്ങൾ രണ്ടുപേരുണ്ട് പിന്നെ ഞാൻ വെയിറ്റും ചെയ്യണ്ടേ എൻ്റെ ഒരു ദിവസത്തെ അതല്ല എൻ്റെ ഒരു ദ് ഫുൾ ദിവസത്തെ ഓട്ടം പോയി നിങ്ങൾക്ക് വേണ്ടി ഞാൻ രാവിലെ ഇപ്പോൾ ഓട്ടോയെടുത്ത് പാലരുവി പോയാൽ നിങ്ങള് പിന്നെ വൈകിട്ടല്ലേ തിരിച്ചുവരൂ എനിക്ക് വേറെ ഓട്ടം ഒന്നും കിട്ടത്തില്ല ആ അപ്പം പിന്നെ

ഓക്കേ ഓക്കേ എന്നാൽ ഒരു നമുക്ക് ഒര് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാം ആ അപ്പോൾ നിങ്ങള് ഏത് സമയം രാവിലെ എങ്കിൽ ഒരു ഏഴ് മണിക്ക് വയലായി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും വൈകിട്ട് ഒരു ആറുമണി ഏഴ് മണിയാകുമ്പോൾ നിങ്ങളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാം ഓക്കേ ഓക്കേ നിങ്ങളുടെ നിങ്ങൾ ആ പൈസ തരുന്നതല്ലേ നിങ്ങള് പറയുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയി ഇറക്കുന്നതായിരിക്കും അപ്പോൾ അ ഉച്ചയ്ക്ക് ആ ഉച്ചയ്ക്കത്തെ ഫുഡ് നിങ്ങൾ മേടിച്ച് തരണം കാരണം ഞാൻ അഞ്ഞൂറ് രൂപ കുറച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങള് ഫുഡ്ഡ് ഫുഡും മേടിച്ച് തരണം ചായ കടി അങ്ങനത്തെയൊക്കെ മേടിച്ച് തരണം ആ മാഡം ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങൾക്കും ജീവിക്കണ്ടേ വീട്ടിൽ ഫാ പിള്ളേരും പിറുങ്ങണികളൊക്ക് ഉണ്ട് നമുക്കും പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉണ്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം അതുങ്ങളെ വളർത്താൻ മേഡം ഞാനായത് കൊണ്ടാണ് ഈ അയ്യോ മാഡം അത് പറ്റത്തില്ല മാഡം സോറി മാഡം അത് പറ്റത്തില്ല കാരണം ഞങ്ങളുടെ ആ ഒരു ദിവസത്തെ ഫുൾ ജോലി കളഞ്ഞിട്ടാണ് നിങ്ങളുടെ കൂടെ വരുന്നത് ഓക്കേ ഓക്കേ നിങ്ങൾ പറയുന്ന സമയത്ത് ഓക്കേ ഓക്കേ മേഡം ഓക്കേ ഓക്കേ ഓ